അതെല്ലോ കടന്ന് വരൂ മാഡം ഉം ഉം ഉം ആ ആയി ഉം ആ പിന്നെ ഇതാ ഇപ്പം പുതിയ റെഡ്മി ആ റെഡ്മി ഇരുപത് ഇരുപത്തഞ്ച് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല ഇതാണ് നല്ല നാല് ക്യാമറകളുണ്ട് അതിൻ്റെ ഫോട്ടോ വളരെ നല്ലതാണ് നല്ല അതിൻ്റെ പിക്സൽ വളരെ കൂടുതലാണ്

ആ ക്ലാരിറ്റി വളരെ ക്ലിയർ ആണ് ആ നാല് പിക്സൽ ഉണ്ട് അത് വളരെ ഗുണങ്ങളോടും ഉള്ള പോകോ ലഭ്യമായ കാലത്ത് ഏറ്റവും വില കുറവുള്ള സാധനമാണിത് അതിൻ്റെ ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ആ കുറവാണ് ഇത് വെറും മുപ്പതിനായിരം രൂപയേ ഉള്ളൂ മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ഇത് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് ആ ആ നിങ്ങൾ നിങ്ങൾ ആ ഇപ്പോൾ നല്ല സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് പുതിയ ഇതിനകത്ത് ആൾക്കാരുമായിട്ട് ആ പിന്നെ ഇതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതിനകത്ത് എന്നാൽ ഒന്ന് ഒരു പത്ത് ശതമാനം ആ അത് ഇപ്പം കുറഞ്ഞിട്ടാണ് രണ്ടാഴ്ച ഇത് നില നിൽക്കുന്നുണ്ട് രണ്ട് ആഴ്ചയ്ക്കകം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ നമുക്ക് ചെയ്യാം ആ അപ്പോൾ പത്ത് ശതമാനം കുറയും അല്ല ആ സമയം നിങ്ങൾ ഇരുപത്തിയേഴായിരം രൂപ മാത്രം അടച്ചാൽ മതി നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വീടിനുള്ള തീയതി വരുന്നുണ്ട് ഈ ഇരുപത്തിമൂന്നോ അല്ല അതെയോ ആ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് വന്നിട്ട് ഇത് അനുസരിച്ച് ഞാനും കൂടെ ഒന്ന് പഠിക്കട്ടെ അതിനകത്ത് ഏ ആ ഓ പിന്നെ ചെയ്യാം നമ്മൾ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം വരാൻ പറ്റുമെന്ന് നിങ്ങൾ വരൂ നമുക്ക് നോക്കാം ആ ഇ ഇരുപത് ഇല്ല ഇല്ല ഞങ്ങളുടെ ഭാഗത്ത് അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാൽ ഞാൻ നാളേക്ക് ഞാൻ തൃശ്ശൂർ നമുക്ക് കാണാം ഓക്കെ ഓക്കെ ശരി